ഹലോ കേൾക്കുന്നുണ്ടോ എൻ്റെ നമ്പറ് പോയി അപ്പം അതൊന്ന് ഡിലീറ്റ് ഈ പിന്നെ അപ്ഡേറ്റ് ഇൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അപ്പം അത്കൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒരു പിടിപാടില്ല അപ്പം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് വഴിയിൽ കൂടിയാണ് ചെയ്താൽ ആ നമ്പർ ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്നൊക്കെ അതിന് എന്തൊക്കെ ഇത് രേഖകൾ വേണമെന്ന് എനിക്കറിയത്തില്ല പിന്നേ ആധാർ കാർഡോ പിന്നെ ഇത് പാസ്ബുക്കോ റേഷൻ കാർഡോ എന്താ വേണ്ടതെന്ന് ഇപ്പം എനിക്കറിയാൻ പാടില്ല അപ്പം അതൊന്ന് ചോദിച്ച് കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാന് വിളിച്ചത് പിന്നെ വേറെന്തെന്ത് എനിക്കൊന്ന് പറഞ്ഞ് തരാമോ ആ രേഖകളൊക്കെ ഒന്ന് പറഞ്ഞ് തരികയാണേൽ വളരെ നന്നായിരുന്നേനെ ഞാൻ പലരോടും ചോദിച്ചു അവര് പറഞ്ഞു അക്ഷയിൽ പോയാൽ മതി എന്ന് അപ്പം അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് ആ ഭയങ്കര തിരക്കായത് കാരണം കൊണ്ട് എനിക്കത് കിട്ടിയില്ല അന്നാ മൊബൈൽ മുഖേന ഇത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാന് പറഞ്ഞത്